നമ്മുടെ വിളകൾ നമ്മൾ വിളവകൾ ഉൽപ്പന്നങ്ങൾ ഒക്കെ വിൽക്കുമ്പോൾ ഉണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഉണ്ടാക്കുന്നു അത് ഇടനിലക്കാർ വാങ്ങുന്നു ഇടനിലക്കാർ വന്നിൽ വൻകിടക്കാർക്ക് കൊടുക്കുന്നു അപ്പോൾ വൻകിടക്കാർക്ക് കൊള്ള ലാഭം ഉണ്ടാവുകയും താഴെതട്ടിൽ പ്രവർത്തിച്ച നമ്മൾക്ക് നമ്മൾ ചൂഷണത്തിന് ഇരയാവുകയും ചെയ്യുകയാണ് നമുക്ക് കൃത്യമായ വേതനം കിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് നിലവിൽ ഉണ്ടാവുക അങ്ങനെ പല തരത്തിലുള്ള ചൂഷണമാണ് ഇവിടെ നമ്മുടെ കർഷകർ നേരിടുന്നത് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇതെ ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പം അത്തരത്തിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ചൂഷണം ചെയ്തോണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള നടപടിയാണ് ഉള്ളത്